തയ്ക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് തെറ്റുകളൊക്കെ പറ്റാറുണ്ട് അപ്പം നമ്മളത് മനസ്സിലാക്കി അത് തിരുത്താനായിട്ട് ശ്രമിക്കും പിന്നെ മറ്റുള്ളവരോട് അഭിപ്രയങ്ങൾ ചോദിക്കും യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാം നമുക്ക് എങ്ങനെയാണത് ശരിയാക്കേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് ശരിയായി രീതിയില് ചെയ്യണ്ടത് എന്നും ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓണ്ലൈനിൽ കൂടി ഇപ്പം നമുക്ക് എല്ലാം കിട്ടുമല്ലോ അപ്പം അതനുസരിച്ച് എല്ലാം ചെയ്യാന് പറ്റും നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിയുമ്പോഴാണ് നമ്മൾ അതില്നിന്ന് പഠിക്കുന്നത് ഇപ്പം ഒരു തെറ്റ് പറ്റുവാണെ നമ്മൾ അതില്നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും